തീർച്ചയായും മലയാള സിനിമ വളരെ വലിയ വിജയമാണ് തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്നത് പല സിനിമകളും അത് പഴയ തലമുറ സ് നായകന്മാരുടെയോ നടികളുടെയോ സംവിധായകരുടെയോ മാത്രമല്ല പുതിയ നായികമാരും നായകന്മാരും സംവിധായകരും എല്ലാം തന്നെ മലയാള ജനതയുടെ മനസ്സറിഞ്ഞ് അവർക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ചുള്ള സിനിമകൾ നൽകാൻ ഇന്നത്തെ തിരക്കഥാകൃത്തുക്കളും തയ്യാറാണ് അതിനാൽ തന്നെയാണ് മലയാള സിനിമ ഇത്തരത്തിലുള്ള ഒരു വിജയം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കലാമൂല്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളെ മറ്റ് ഭാഷ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സ്ഥാനം മലയാള സിനിമ നേടിയിട്ടുണ്ട് അതിന് ഇപ്പോഴത്തെ ഈ തലമുറയിൽ അതിന് പ്രധാന കാരണം ഒ ടി ടി റിലീസും മറ്റുമാണ് കോറോണയ്ക്ക് ശേഷം കൂടുതലായും സിനിമകൾ ഒ ടി ടിയിലാണ് റിലീസ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇന്ത്യയും ഇന്ത്യയിലെയും മറ്റ് ദേശത്തെ സിനിമ പ്രേമികൾക്കും മലയാള സിനിമ ഒരു അവിഭാജ്യഘടകമായി മാറിയിട്ടുണ്ട് ആവരുടെ ആസ്വാദനം മലയാള സിനിമയിലെ കഥാപാത്രങ്ങൾ എല്ലാം വളരെ തികച്ചും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ളതുമായതിനാൽ നമുക്കത് കൂടുതലും നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നു അത് തന്നെയാണ് ഇത്തരം സിനിമകളുടെ വിജയത്തിൻറെ പ്രധാന കാരണം മറ്റ് കൊമേർഷ്യൽ സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമ

നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബഡ്ജറ്റിൻ്റെ തലത്തിൽ ആണെങ്കിൽ തന്നെയും കഥയുടെ രീതിയിലാണെങ്കിൽ തന്നെയും എല്ലാം അവർ നല്ല രീതിയിലുള്ള പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ നായകന്മാരെയും പോലെ തന്നെ വളരെ അവിഭാജ്യമായിട്ടുള്ള കട ഘടകമാണ് കഥാ തന്തു അത് മറ്റ് സിനിമകളിൽ വെച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും മൂല്യമുള്ളത് മലയാള സിനിമയ്ക്ക് തന്നെയാണ് അതാണ് ഈ വിജയത്തിൻ്റെ പ്രധാന കാരണമായി ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇനി കഥാപാത്രങ്ങങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ നടീനടന്മാർ മുതൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന യുവ തലമുറ നടീ നായകന്മാർ സംവിധായകർ വരെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത്തരത്തിലുള്ള കഥാപാത്രങ്ങങ്ങളാണ് ചെയ്യുന്നതും അവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിലുള്ളതുമായൊരു അഭിനയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ടാലെൻറഡ് ആയിട്ടുള്ള വ്യക്തികളാണ് മലയാള സിനിമയെ ഈ രീതിയിൽ ഇന്നും പിടിച്ചുനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരുന്ന തമുറയാണെങ്കിൽ കൂടിയും അവർ വളരെ ഈ മലയാള സിനിമ കണ്ട് വളർന്ന ആ ഒരു കണ്ടുവളർന്നതിൻ്റെ ഒരു പ്രയോജനം അവരുടെ അഭിനയത്തിലായാലും അവരുടെ പെർഫോമൻസിൽ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് മറ്റ് ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മലയാള സിനിമ ഇത്തരത്തിൽ വളരുന്നതും അവർ തീയേറ്ററിലും മറ്റും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നതും തുടരെ തുടരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരെ തുടരെയായി ചിത്രങ്ങൾ വിജയിച്ച് പോകുന്നതിനുമുള്ള പ്രധാന കാരണം അതാണ് ഇനി എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ തന്മാത്ര സിനിമ അതിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം അൽഷിമേഴ്സ് ബാധിച്ച അതിലേക്ക് അഭിനയം വളരെ മികച്ച അഭിനയമാണ് അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ വളരെ കുട്ടിക്കാലത്ത് കണ്ടൊരു സിനിമ ആണ് അത് എന്നാൽ കൂടിയും ഇന്നും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിനെ അതിൻറേതായ മികവുറ്റ രീതിയിൽ ആ അതിലെ നടൻ മിക മികച്ചതാക്കി തീർത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഇന്നും നമ്മുടെ നമുക്കത് ഓർത്തിരിക്കാനും ആ സിനിമ കാണുമ്പോഴെല്ലാം കരയാനുമുള്ളൊരു അനുഭൂതി ഉണ്ടാവുന്നത് ആ അഭിനയത്തിൽ നിന്നും ഉൾകൊണ്ടതു കൊണ്ടും മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമ ഇത്തരത്തിൽ മുന്നേറികൊണ്ട് പോ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തിറങ്ങിയ കാതൽ മമ്മൂട്ടിയും ജ്യോതികയും അഭിനയിച്ച കാതൽ അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ജനതയുടെ കഥ പറയുന്ന സിനിമ ആണ് അതിൽ ഒരു സ്വവർഗ്ഗ അനുരാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇ ഇന്നത്തെ പണ്ടത്തെ കൊമേർഷ്യൽ രീതികളെല്ലാം മാറ്റിവെച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കാൻ സംവിധായകരും എഴുത്തുകാരും തിരക്കഥാകൃത്തുക്കളും തയാറാകുന്നതിൻ്റെ ഫലമാണ് ഇന്നലത്തെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നടീനടൻമാർ അവരുടെ നൂറ് ശതമാനം പുലർത്താനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ കൂടിയും ബഡ്ജറ്റിലുള്ള ഒരു ചെറിയ അപാകതയാണ് ഇതുവരെ മലയാള സിനിമ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം എന്നാൽ ഇന്ന് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങങ്ങളും മലയാള സിനിമ നിറഞ്ഞ സദസ്സുകളിൽ ഓടികൊണ്ടിരിക്കുകയാണ് കഥാ മൂല്യങ്ങളെ എന്നും ജനങ്ങൾ അംഗീകരിക്കുമെന്നതിൻ്റെ മികച്ച തെളിവാണിത് മറ്റ് ഭാഷ ചിത്രങ്ങളിൽ ആ ഒരു മൂല്യം കുറഞ്ഞു വന്നപ്പോൾ മലയാള സിനിമകൾ എന്നും മികവുറ്റതാണ് എന്ന് തിളി തെളിയിച്ചുകൊണ്ടാണ് ഇത്തരം സിനിമകൾ മുന്നോട്ട് വരുന്നത് മറ്റുള്ള ഭാഷകളിലും ഇത്തരം സിനിമകൾ വളരെ അധികം പ്രചോദനം ചെലുത്തുന്നുണ്ട് അത്തരം ഇൻ ഇൻഡസ്ട്രികളിലും ഇതുപോലെ ഉള്ള സിനിമകൾ വരാൻ മലയാള സിനിമകൾ ഒരു തുടക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലുള്ള കാനിസ് പോലുള്ള അന്തർദേശിയ തലങ്ങളിലും മലയാള സിനിമകളും നടീനടന്മാരും സംവിധായകരും മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കുകയും മികച്ച അംഗീകാരങ്ങൾ അവർ അർഹിക്കുന്ന അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതുമാണ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് അതിവരുടെ അക്ഷീണമായ പരിശ്രമത്തിൻറെയും മലയാള സിനിമയുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും